ഇന്ത്യയിലെ സാംസ്കാരിക പാരമ്പര്യങ്ങളും വിശ്വാസങ്ങളും വളരെയധികം പ്രാധാന്യമേറിയ ഒന്ന് തന്നെയാണ് ഇതില് പ്രധാനപ്പെട്ടത് ഇന്ത്യയുടെ സംസ്കാരം തന്നെയാണ് മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയുടെ സംസ്കാരം വളരെ പേര് കേട്ട ഒന്ന് തന്നെയാണ് അതുപോലെ തന്നെ വിശ്വാസങ്ങളും മതപരമായ വിശ്വാസങ്ങളിൽ ഇന്ത്യ വളരെ മുന്നിട്ടാണ് നിൽക്കുന്നത് കാരണം ഇന്ത്യ ഒരു മതേതരത്വ രാജ്യമാണ് കാരണം ഒരു മതത്തിനും ഇന്ത്യ പ്രാധാന്യം കൊടുക്കുന്നില്ല എല്ലാ മതവിശ്വാസികൾക്കും ഇന്ത്യയിൽ സുഖമായി ജീവിക്കാം കാരണം ഏത് മതത്തിനും ഇന്ത്യ പ്രാധാന്യം കൊടുക്കുന്നില്ല ഹിന്ദു മതമാണ് ഇന്ത്യയില് കൂടുതൽ ഉള്ളത് അതുപോലെ തന്നെ മുസ്ലിം മതവും ക്രിസ്ത്യൻ മതവും ഈ മൂന്ന് മതങ്ങളും ഇന്ത്യയിലൊരു പോലെ തന്നെ എന്താ പറയുക പ്രാധാന്യമർഹിക്കുന്നുണ്ട് എല്ലാ വിശ്വാസികളും വിശ്വാസികളും അവരുടെ മതത്തില് വളരെയധികം പ്രാധാന്യമർപ്പിച്ചു കൊണ്ട് ജീവിച്ചു പോകുന്നുണ്ട് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഹിന്ദു മതമാണ് ഇന്ത്യയിൽ ഉള്ളതില് മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ഹിന്ദുമത വിശ്വാസികളുള്ളത് അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം ഒരു സാംസ്കാരികമായ ഒരു വിശ്വാസം തന്നെയാണ് ഹിന്ദുമതം പിന്നെ ഇതിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ പല ആചാരങ്ങളുമാണ് മതപരമായ പല ആചാരങ്ങളും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയില് വ്യത്യസ്ത വ്യത്യസ്തത പെട്ടു നിൽക്കുന്നുണ്ട് പിന്നെ അതുപോലെ വസ്ത്രധാരണരീതി മറ്റ് രാജ്യങ്ങളെ വച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ വസ്ത്രധാരണരീതി വളരെ വ്യത്യസ്തമായ ഒന്നാണ് പിന്നെ ഇവിടുള്ളത് ഭക്ഷണം ഇന്ത്യയുടെ ഭക്ഷണ രീതി മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വളരെയധികം വ്യത്യസ്തപ്പെട്ട ഒന്ന് തന്നെയാണ്